സാധാരണയായിട്ട് പകർച്ചവ്യാധികളാണ് കണ്ടെത്തി വരുന്നത് പോഷകാഹാരക്കുറവുകളൊന്നും ഇപ്പോൾ പൊതുവേ ആർക്കും വല്ലാതെ ഒന്നുമില്ല അങ്ങനെ എന്ത് കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് സ്കൂൾ തലത്തിലും അംഗനവാടി തലങ്ങളിലൊക്കെ കുട്ടികൾകൊക്കെ ധാരാളം പോഷകാഹാരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത് പക്ഷെ പകർച്ചവ്യാധികൾ ഇപ്പോൾ ഈ വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്തുള്ളത് കാരണം കുട്ടികൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പോവും നമ്മൾ എല്ലാവരും ഒരു ഗ്രാമപ്രദേശമാണല്ലോ എല്ലാവരും ഒരു ഒരുമയോട് കൂടി കഴിയുന്ന ഒരു പ്രദേശമായതു കാരണം ഒരു വീട്ടിൽ പനി വന്നാൽ അത് വേഗത്തിൽ അപ്പറത്തെ വീട്ടിലേക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചൂടുകാലം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുക ആ ഒരു സാഹചര്യത്തിൽ പനി ജലദോഷം അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം കണ്ണ് സൂക്കേട് ചെങ്കണ്ണ് അതായത് ചെങ്കണ്ണ് പിന്നേ ഈ അഞ്ചാം പനി ചൊള്ള അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വേഗത്തിൽ നമുക്ക് പകർച്ചവ്യാധികളായിട്ട് വേഗത്തിൽ നമ്മുടെ അതിലേക്ക് പടർന്ന് കാണാറുണ്ട്